ഹലോ ആ ഹലോ മാം മാം ഒരു ലോണിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണെ അതെ അതെ ബിസിനസ് ബിസിനസ് ലോൺ ആണേ ഷോപ്പില് വന്ന് ആ ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയുള്ള ലോൺ ആണേ ആ അപ്പോൾ മാം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ വരുന്നത് എത്ര പൈസ കിട്ടും ഇപ്പോൾ അതില് അതെ അതെ അതെ അതെ അതെ ആ ടൗൺ ഏരിയ ആണ് അതെ അതെ അത് സൂപ്പർമാർക്കെറ്റാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതെ അതെ അതെ അതെ ഓക്കെ

അപ്പോൾ നമുക്ക് പലിശ ഒക്കെ എങ്ങനെയാണ് വരുന്നത്

ഓക്കെ ഓക്കെ നമ്മള് നോർമല് ബാങ്കില് ഡോക്യൂമെൻസ് വെക്കണ്ടേ

ഓക്കെ നമ്മുടെ പേരിലാണ് സ്ഥലമെങ്കിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ ആ സ്ഥൽ സ്ഥലമെങ്കിൽ നമ്മളാ അയാള് വന്നൊ എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ മാം ഇല്ല മാം താങ്ക്യൂ